ഹലോ ഹലോ മേഡം റുമൈസ് ആയിരുന്നു

പനി ആയതുകൊണ്ടാണ് ഒരു മൂന്ന് ദിവസമായി കാണിച്ചിട്ടില്ലാ പിന്നെ പിന്നെ അത് പോകും പോകും എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ മരുന്ന് ഒരു പാരാസിറ്റമോള് ഒരു ദിവസത്തേ കുടിച്ചിന് ഇല്ലല്ലില്ലാ ആ അതേ വീട്ടിൽ ഉണ്ടായിരുന്നു പനി പുറത്ത് പോയിട്ട് വന്നതല്ലാ പക്ഷേ പിന്നെ ഒരിക്കൽ ഉണ്ടായിരുന്നു

ആ തൊണ്ടവേദന ഉണ്ട് കുറച്ച് ആ ആ ആ ഓക്കേ ഓക്കേ ഓക്കേ

ആ ആ എത്ര മണിക്കാണ് എത്ര മണിക്കാണ് വരേണ്ടത്

ആയിക്കോട്ടേ ആയിക്കോട്ടേ ആയിക്കോട്ടേ കുഴപ്പമില്ല അങ്ങനെ ആണേൽ പിന്നെ അങ്ങനെ ആണെങ്കിൽ എന്തൊക്കേ ഞാൻ അങ്ങോട്ടേക്ക് വരാം അതാണ് നല്ലത് ഇല്ല തലവേദന ഇല്ല ആ ആ കഫക്കെട്ട് ഉണ്ട് സംസാരിക്കുമ്പം കുറച്ച് ആ ആ ആ ഓക്കേ ഓക്കേ ഓക്കേ എത്ര മണിക്ക് വരേണ്ടത്

ആ ശരി ശരി ഓക്കേ